ഇപ്പോൾ ഒരു യോഗ അഭ്യസിക്കുന്നയാള്ക്ക് പരിപൂര്ണ്ണ അവര്ക്ക് നല്ല രീതിയിലുള്ളൊരു ആരോഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അത് നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണെന്നൊക്കെ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുന്നത് കുറച്ച് നേരത്തെയാക്കുക അപ്പോൾ ധ്യാനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടൈമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ എണീക്കുക എണീറ്റ് കഴിഞ്ഞ ഉടനെത്തന്നെ നമ്മൾ നമ്മുടെ അതായത് പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാവിലെ എണീറ്റ് കഴിഞ്ഞാലുള്ള ബാത്ത്റൂമില് പോകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചു നേരം ഫ്രീയായിട്ട് നമ്മുടെ അനങ്ങാതെ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് നമുക്കൊരു ധ്യാനം ആവിശ്യമായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ പോയിട്ട് ഇരിക്കുക അതു കഴിഞ്ഞിട്ടു നമ്മൾ നമ്മുടെ ശ്വാസം അതായത് നമ്മുടെ ശ്വാസം നല്ല രീതിയില് വലിച്ചും വിട്ടും കൊണ്ടിരിക്കുക അത് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മൈന്ഡ് നമുക്ക് ക്ലീന് ആക്കാന് വേണ്ടി സാധിക്കുകയുള്ളൂ ഇപ്പം രാവിലെ ആണ് നമ്മുടെ മൈന്ഡും എല്ലാം ക്ലീനായിട്ട് ഇരിക്കുന്നത് അപ്പം ആ സമയത്ത് നമ്മൾ ധ്യാനവും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആരോഗ്യം നല്ല രീതിയിൽ ഉയര്ന്നു വരാന് തന്നെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ആ സമയങ്ങളിലാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടത് ഇപ്പം ധ്യാനവും പ്രണായാമവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോള് നമ്മുടെ യോഗാഭ്യാസത്തില്ത്തന്നെ നല്ല രീതിയില് നമുക്ക് ഉയര്ന്നു വരുന്നു നമുക്ക് ഇപ്പം ശ്വാസം മുട്ടൽ കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല അങ്ങനത്തെ പല രീതിയിലുള്ള അസുഖങ്ങള്ക്ക് നമുക്ക് യോഗ നല്ലൊരു കാര്യമാണ്